ഇല്ല ആരാണ് ഓ മേഡം എന്തുപറ്റി കാര്യം മനസ്സിലായില്ല ഇല്ല ഹലോ ഹലോ അയ്യോ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി മേം ഉണ്ട് മേം ബട്ട് സോറി ഞാനാവർത്തിക്കില്ല മേമിൻ്റെ കയ്യിൽ നിന്നു കിട്ടിയിട്ടുണ്ടോ എൻ്റെ ഐ ഡി കാർഡ് അ മേടം അത് എൻ്റെ കയ്യിൽ നിന്നൊരബദ്ധം പറ്റിപ്പോയതാണ് മേം ഞാനതറിഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയതാണ് ഞാനറിഞ്ഞില്ല മേം അതേ മേഡം ഞാൻ പഠിക്കാൻ തന്നെയാണ് വരുന്നത് ആ ഞാൻ ബി എ സോഷ്യോളജി സെക്കൻ്റ് ഇയറാണ് മേം ഞങ്ങളുടെ ഹെഡ് എന്തിനാണ് മേം വഴക്ക് പറയാനാണോ അ മേം ആ ഞാൻ ഐ ഡി കാർഡ് അവിടെ വന്നു മേടിച്ചോളാം അയ്യോ മേഡം അങ്ങനെ ചെയ്യരുത് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് കോളേജിലേക്കു വരുന്നത് ഒരുപാട് ദൂരത്തു നിന്ന് അപ്പയും അമ്മയും വരാനായിട്ടു സാധിക്കില്ല അ മേഡം എനിക്കതേ പറയാനായിട്ടു പറ്റുകയുള്ളൂ മേഡം അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ മേം അപ്പോൾ ഐ ഡി കാർഡെനിക്ക് തിരികെ തരണം എൻ്റെ സാധിക്കത്തെ ഇതു കൊണ്ട് ഒരു വിദ്യാർത്ഥിയല്ലേ ഞാൻ ഓക്കെ മേം